ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഇവിടെ മതപരമായിട്ട് ഞങ്ങൾ അതിന് ഭാഗമായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഹിന്ദുക്കളുടെ രീതിയിൽ പറയുവാണെങ്കിൽ ഹിന്ദുക്കളുടെ ഇവിടെ മാ അമ്പലങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് നേർച്ച കാഴ്ച്ചകളുണ്ട് അവർ നല്ല ഈ ഉണ്ണിയപ്പം ഒക്കെ വിതരണം നടത്തുന്നത് അവർ നേർച്ചയായിട്ട് എടുക്കുന്നുണ്ട് അവർ ഉണ്ടാക്കിയും എടുക്കുന്നുണ്ട് അതുപോലെ ഈ പൊങ്കാല പ്രധാനമായിട്ടും ഇവിടെയുള്ള ഹിന്ദുക്കളുടെ പ്രധാന ദേവാലയങ്ങളിൽ എല്ലാ അമ്പലങ്ങളിലെല്ലാം ഓരോ ആഴ്ച്ചകളിലെ ഞായറാഴ്ച്ച ദിവസങ്ങളിൽ പൊങ്കാല ഈ ഞാ തിങ്കൾ അങ്ങനെ പൊങ്കാല ചെയ്യുന്നവരുണ്ട് അത് ഈ അരി ചോറ് വെച്ചിട്ട് പായസം പോലെ വെച്ചിട്ടത് നേർച്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതാണിപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ പൊങ്കാല അത് എല്ലാ അമ്പലങ്ങളിലും മിക്കവാറും ഇവിടെ എല്ലാ വർഷങ്ങളിലും ഉത്സവത്തോടനുബന്ധിച്ച് ദേവീക്ഷേത്രങ്ങളായാലും ഭഗ പിന്നെ ശിവക്ഷേത്രങ്ങളായാലും ശിവക്ഷേത്രങ്ങളിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് ദേവീക്ഷേത്രങ്ങളിൽ എല്ലാം മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നേർച്ച നടത്താറുണ്ട് അവർ അത് പാച്ചോറാണ് പായസം വെച്ച് പിന്നെ സ്ത്രീകളാണ് കൂടുതലും അത് ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് അപ്പം സ്ത്രീകൾ അത് പായസം പാച്ചോറ് നേർച്ച നടത്തി അവർ അത് പുണ്യമാ പുണ്യം അവരുടെ അമ്പലങ്ങളിലെ അവരുടെ പൂജാരിമാർ പുണ്യപ്പെട് പെടുത്തി അവർ എടുത്ത് അതാണ് നേർച്ച ആയിട്ട് അവർ ഉപയോഗിക്കാറുണ്ട് അത് വളരെ ഭക്തവ ഭക്തിനിർഭരമായിട്ട് ചെയ്യുന്നൊരു ചടങ്ങാണ് അവർ നേർച്ച ഭക്ഷണങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും അവർ ഊട്ട് നേർച്ചയുണ്ട് ഊട്ടുനേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വെജിറ്റബിൾ വെജിറ്റേറിയൻ അപ്പം അത് എല്ലാ ഉത്സവങ്ങളോട് അനുബന്ധിച്ച് അവ മിക്കവാറും അവർ ഈ വളരെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അത് ഉച്ചഭക്ഷണം നേർച്ച ഭക്ഷണമായിട്ട് അത് വെജിറ്റേറിയൻ ആണ് പിന്നെ ചോറും കറികളും അത് അവർ ചെയ്യാ പിന്നെ ഹിന്ദുക്കളുടെ ആയിട്ട് നടത്താറുണ്ട് പിന്നെ അടുത്ത നമ്മൾ പറയുവാണെങ്കിൽ മുസ്ലീങ്ങളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവരുടെ മിക്കവാറും അവർ നബിദിനം അതുപോലെ ഈ മിലാദ് ഇ ഷെരീഫ് അങ്ങനെയൊക്കെ ഉള്ള പ്രധാനപ്പെട്ട അവരുടെ നേർച്ച ഈ പെരുന്നാളുകൾ അങ്ങനെയുള്ള പരിപാടികൾക്ക് അവർ നല്ല വിശ് നോൺ വെജ് വിചാരമായിട്ട് ബിരിയാണി പോലെ ചോറും ഇറച്ചിയും ചോറും നല്ലതുപോലെ വെച്ചിട്ട് അവർ പോത്തുകളെ ഈ മുരുക്കൾ മാട് ആടുമാടുകളേയും അവർ നേർച്ചയായിട്ട് സ്വി പള്ളികളിൽ കിട്ടുന്നുണ്ട് അതിനെ അവർ പിന്നെ ക കറി വച്ചും ഭക്ഷണമായി ഈ ബിരിയാണി ആയിട്ടും നൂറുകണക്കിന് ആൾക്കാർക്ക് അവർ പ പള്ളിയിൽ നിന്നുതന്നെ അവർ അത് നേർച്ചയായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് ഓരോ വീടുകൾക്കനുസരിച്ച് അവർ പൊതി പാഴ്സൽ ആയിട്ട് പൊതിഞ്ഞു കൊടുക്കുന്ന അങ്ങനെ പരിപാടി ഞങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് അവർ അത് കൂടുതലും നോൺ വെജ് ആണ് അവർ എല്ലാവരും അത് ഈ ഇറച്ചി ഉപയോഗിച്ചുള്ള ഉപയോഗ ചേർത്തുള്ള മൽ ആഹാരസാധനങ്ങളാണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ചെ ആടായാലും പിന്നെ കാള പോത്ത് ഇതിന്റെ എല്ലാം നേർച്ചയായിട്ട് അവർക്ക് ഇങ്ങനെ മുരുക്കളെ ലഭിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു പള്ളിയെ ഒരു അഞ്ഞൂറ് വീടൊക്കെ ഉള്ള ഒരു പള്ളിയെ കേന്ദ്രീകരിച്ച് ചിലപ്പോൾ ഒരു പത്ത് കാള അഞ്ച് പോത്ത് അതിൽ അഞ്ച് ക കാള ഇങ്ങനെ ഒക്കെ അവർക്ക് നേർച്ചയായിട്ടൊക്കെ പെരുന്നാളിനനുസരിച്ച് കിട്ടുന്നുണ്ട് അത് അവർ വെട്ടി എല്ലാ വീടുകളിലെ അംഗങ്ങളുടെ അനുസരിച്ച് അവർ അത് ക്രമീകരിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ മിക്കവാറും എല്ലാം ഈ പെരുന്നാളിനോടൊക്കെ അനുബന്ധിച്ച് ഞങ്ങളുടെ ഒക്കെ പള്ളി ഞങ്ങളുടെ പള്ളിയിൽ ആണെങ്കിൽ ഞങ്ങളെ സെ സെൻറ് ജോസഫ് ചർച്ച് ആണ് ഞങ്ങളുടെ പള്ളിയിൽ ഓരോ സെൻറ് തോമസ് ഡേ അപ്പം ഞങ്ങൾ മ ജൂലൈ മാസത്തിൽ സെൻറ് തോമസിന്റെ ജൂലൈ രണ്ട് അപ്പം അതിന് ഞങ്ങൾ പാച്ചോറ് വയ്ക്കുന്നുണ്ട് ചോ പായസം വയ്ക്കും അത് അരിയും പ ശർക്കര എല്ലാം അത് നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെ ആൾക്ക് നമ്മുടെ ഇതിനകത്തുള്ള ആൾക്കാർ തന്നെ അത് അതിന്റെ സമ്പത്ത് കണ്ട് ക്രമീകരിച്ച് അത് ചെയ്ത് എല്ലാവർക്കുമൊക്കെ വിതരണം ചെയ്യും അതുപോലെ പെരുന്നാളിനോടൊക്കെ അനുബന്ധിച്ച് ചോറും കറികളും അതും പിന്നെ വെജിറ്റേറിയൻ ആയിരിക്കില്ല നല്ല ഇറച്ചിയും മീൻ ഇറച്ചിയും ചേർത്ത് ഇപ്പോൾ പള്ളിയുടെ തിരുന്നാളിനോടനുബന്ധിച്ച് നേർച്ച ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നേർച്ച അപ്പം അപ്പം എല്ലാ വീടുകളിൽ നിന്നും കുറേ പിന്നെ അപ്പം പിന്നെ ചൊ കൊണ്ടുവന്ന് പള്ളിയിൽ വന്നിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ അത് അത് പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവർക്കും കൂടെ അത് വിതരണം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഇങ്ങനെ നേർച്ച ആയിട്ട് നമ്മൾ ഈ മാതാവിന്റെ തിരുനാൾ ദിവസങ്ങളിലും അതുപോലെയുള്ള മറ്റ് പുണ്യ പുണ്യ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ നേർച്ചയായിട്ട് ഓരോരുത്തരും ഉണ്ണിയപ്പവും പിന്നെ ഈ പാലപ്പം കൊണ്ടുവന്ന് അങ്ങനെ എല്ലാം അങ്ങനെ ഞങ്ങൾ പിന്നെ ക്രിസ്ത്യൻസിന്റെ പള്ളികളിൽ വിതരണം നടക്കുന്നുണ്ട് അപ്പം ഉത്സവങ്ങളുടെ അനുബന്ധിച്ചാണ് കൂടുതലും ഇങ്ങനെ ഈ പ്രത്യേക സാധനങ്ങൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ബിരിയാണി മുസ്ലിങ്ങളുടെയാണ് കൂടുതലും പിന്നെ ചോറും ഇറച്ചിയും ഉള്ളത് ഹിന്ദുക്കളുടേത് ഈ ചോ ചോറും വെജിറ്റേറിയൻ ആണ് പക്ഷേ അവർ പായസം ഈ പിന്നെ ഈ പ്രഥമൻ ചേർത്തുള്ള പായസം ആണവർ ഉപയോഗിക്കുന്നത് പ്രഥമ ചൂണ് ആണ് അവർ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റ്യൻസിന്റെ നമ്മുടെ മതപര ആകുമ്പോഴത്തേക്കും മിക്കവാറും അപ്പം ആയിരിക്കും അപ്പവും ചെറ കറിയും പിന്നെ ചോറും കറിയും അത് പെരുന്നാളിനോട് അനുബന്ധിച്ച് പലതും പല ദേവാലയങ്ങളിലും പല രീതിയിൽ ക്രമീകരിക്കുന്നുണ്ട് എന്നാലും എല്ലാ സ്ഥലത്തും ഈ ഉത്സവങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ട് അത് എല്ലാവരും വ്യത്യസ്തമാണ് എന്നുള്ളതേ ഉള്ളൂ എന്നാലും നോൺ വെജ്ജും വെജ്ജും ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് പിന്നെ പലഹാരങ്ങളായിട്ട് ഉണ്ണിയപ്പം എല്ലാം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ണിയപ്പം ചിലയിടത്തൊക്കെ പലരും കൊടുക്കുന്നുണ്ട് ഈ അമ്പലങ്ങളിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ദേ നമ്മുടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ഈ നേർച്ച ഭ ഉണ്ണിയപ്പമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പം ഭരണങ്ങാനത്തും അതുപോലെ തന്നെ സ്ഥലങ്ങളിലൊക്കെ ഈ നേർച്ച അപ്പമുണ്ട് ചെറിയ ഉണ്ണിയപ്പം അത് വളരെ നല്ലതാണ് നല്ലതായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട് അത് ആൾക്കാർ അങ്ങനെ വ്യത്യസ്ത ഓരോ സ്ഥലത്തും ഓരോരോ രീതി ഉണ്ട് അതനുസരിച്ചൊക്കെ അത് വിതരണങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ വെ മതപരമായ ഉത്സവങ്ങളിൽ ബന്ധ ഭക്ഷണ സാധനങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്തമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും അത് ക്രമീകരിക്കുന്നും ഉണ്ട്